ഹലോ ആ ചേച്ചി എന്തൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ആ എങ്ങനെ ഉണ്ട് ചേച്ചി കച്ചവടം ഒക്കെ ആ തിരക്കൊക്കെ കുറവാണല്ലോ ആ അതുകൊണ്ടാണ് ആ തക്കാളി ഒക്കെ ഉണ്ടോ ചേച്ചി ഏ ഹാ ശരി ഹാ ഹാ ഹാ എനിക്കൊരു അര കിലോ തക്കാളി വേണം ആ ഹാ ഹാ അതെ അതെ ഡെയിലി വന്ന് വാങ്ങിക്കാമല്ലോ അല്ലേ ആ ആ ആ അര കിലോ തക്കാളി എടുത്തോ ചേച്ചി ആ ഹാ ഹാ ഹാ ആ ആ ആ എ ആ ഒരു കിലോ ഏത്തയ്ക്ക ചേച്ചി എന്ത് വിലയാണ് ചേച്ചി ഏത്തയ്ക്ക ഏത്തയ്ക്ക എന്ത് വിലയാണ് ആ ഹാ ഹാ ആ ഒരു പത്ത് മുട്ടയും കൂടി വേണേ നാടൻ മുട്ട മതിയേ ആ ആ മുട്ട എന്ത് വിലയാണ് ഏഴ് രൂപ ആ ആ ആ ഒരു കിലോ പഞ്ചസാര ഒരു ഒരു കാൽ കിലോ തേയില ആ ബിസ്കറ്റ് ഏതാണ് ചേച്ചി ഉള്ളത് ബിസ്കറ്റ് ആ മറ്റേ ഡാർക്ക് ഫാൻ ക്രീം ആണോ ആ ഡാർക്ക് ഫാൻ്റസി എടുത്തോ എന്നാൽ ഒരു പാക്കറ്റ് മതി ആ ഒന്ന് മതി ആ അത്രയും മതി ചേച്ചി വന്നോളാം പിന്നെ പിന്നെ എങ്ങനെയാണ് ചേച്ചി ഞായറാഴ്ച ഇപ്പം കട ഉണ്ടോ ഇപ്പോൾ കട ഉണ്ടല്ലേ ഉച്ച വരെ ഉണ്ടാവും അല്ലേ ആ ഹാ ഹാ ഹാ ആ ആ ആ പറയാം പറയാം പറയാം ചേച്ചി എല്ലാം ഒന്ന് എടുത്ത് വെച്ചേക്ക് കേട്ടോ ഞാൻ വൈകിട്ട് വന്നിട്ട് എടുത്തോളാം കേട്ടോ ഞാൻ ആ ആ ഹാ ആ പിന്നെ വേറെ വേറെ ആ ഒരു വീട് ആ ആ ഉണ്ടല്ലേ ആ പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വേണമായിരുന്നു ചേച്ചി എന്നാൽ കുറച്ച് കൂടി വേണമായിരുന്നു ഒരു ഒരു കാൽ കിലോ ഒന്ന് ചേച്ചി ഒന്ന് വേണമെങ്കിൽ കൊ കുറിച്ചെടുത്തോ എന്നിട്ട് എടുത്ത് വെച്ചാൽ മതി ഓക്കെ ഒരു ക പരിപ്പ് അര കിലോ കടല ഒരു അര കിലോ ബീൻസ് പിന്നെ ഒടിയൻ പയർ ഉണ്ടോ ചേച്ചി ആ അതും എടുത്തോ കാ അര കിലോ എടുത്തോ ആ ഒരു കിലോ കിഴങ്ങ് ഒരു കിലോ സവാള സവാളയുടെ ഒക്കെ വില എങ്ങനെ ഉണ്ട് ചേച്ചി ഇപ്പോൾ ആ കുഴപ്പമില്ല നല്ലതായിരുന്നു നന്നാ ആ കുഴപ്പമില്ല ചേച്ചി അതിനകത്ത് സവാ ആ പച്ചക്കറി ഒക്കെ കൊള്ളാമായിരുന്നു പിന്നെ സവാള ഒക്കെ ഈ മഴ കൊണ്ടാണോ എന്ന് അറിയില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചീഞ്ഞ് ആ ആ ആ ആ ആ ആ ആ ആ ആ ഹാ അത് കുഴപ്പമില്ല ചേച്ചി കട ആവുമ്പോഴത്തേന് പിന്നെ അങ്ങനെ സ്വാഭാവികമല്ലേ നമ്മൾ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ അങ്ങനെ ഒന്നും പിന്ന പറയുന്നത് ശരിയല്ല അത് കുഴപ്പമില്ല ആ ആ ആ ആ ആ വെളിച്ചെണ്ണ ചേച്ചി മറ്റേ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടോ ചേച്ചി ആ ആ ഓക്കെ ഓക്കെ അതും കൂടി എടുത്ത് വെച്ചോ കേട്ടോ ഓ ആ ശരി ശരി ഞാൻ വൈകിട്ട് വന്ന് എടുത്തോളാം ഓക്കെ ഓക്കെ ശരി ശരി